ഞങ്ങളൊരു കാർഷിക കുടുംബമാണ് കൃഷിയാണ് ഞങ്ങളുടെ മെയിൻ ജോലി ഞങ്ങൾക്ക് പിന്നെ സ്ഥലം ഉള്ളത് കൊണ്ട് കൃഷി അവിടെ പച്ചക്കറി ആണേലും തെങ്ങും കപ്പ അങ്ങനെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ചെയ്യുന്നത് അതിനുള്ള കാലാവസ്ഥയുടെ എന്തോ ഒരു കുറച്ചായിട്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് കൃഷി ചെയ്താലതിനുള്ള പ്രതിഫലം ഇത് കുറവാണ് ഇപ്പം പച്ചക്കറി ആണേലും ചെയ്താലത് ഒന്നീ വിത്ത് മുളക്കുകില്ല അല്ലെങ്കിലത് മുളച്ച് വന്നാൽ തന്നെയും അത് കുരുടിപ്പ് അങ്ങനത്തെ ഒത്തിരി രോഗങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് ഞങ്ങൾ ഇതിനോട് അനുബന്ധിച്ചുള്ള കൃഷി ഭവനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചോദിച്ച് മരുന്നുകളൊക്കെ ചെയ്താലും പ്രയോജനമില്ല പക്ഷേ അതിനൊക്കെ നല്ല പൈസയാവും ഞങ്ങൾക്ക് ഞങ്ങൾ വലിയ ഒത്തിരി ഒത്തിരി തന്നെ ഒക്കെ ചെയ്യും ഇപ്പങ്ങനെല്ലാം നമുക്കൊത്തിരി കാശ് മുടക്കി ചെയ്യാനുള്ള വകുപ്പൊന്നും നമുക്കില്ല ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ ഇതിൽ ചെയ്യാൻ അറിയാവുന്നവരുടെയൊക്കെ ഞങ്ങൾ ചോദിച്ചും പറഞ്ഞും ഒക്കെ ചെയ്യും പക്ഷേ കൃഷിയേന്നതിലിപ്പോൾ കുറച്ചായിട്ട് വലിയ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല നമ്മളെന്തേലും ചെയ്ത് വന്നാലതിന് ഉള്ള വിലയില്ല പിന്നെ അന്നേരം അപ്പം കൃഷി ഒരു ബുദ്ധിമുട്ടായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണോന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ നമ്മൾ ചെയ്യുന്നതിന്റെ അത്രയും നമുക്കൊരു ഒരു വാഴ ഒക്കെ ആണേലും ഒരു വർഷം വേണം അത് കായ് അതിനെ കൊല ആയി നമുക്ക് വെട്ടണേൽ പക്ഷേ അതിനാന്നെ ഒരു വർഷത്തേനൊള്ളെയൊരു ഇത് അതിൽ നിന്നും കിട്ടുന്നില്ല അതിൻ്റെ ഏതു ആണേലും എല്ലാം പച്ചക്കറി ഒക്കെ ആണേലും ഇതുതന്നെയാണ് സംഭവം ഞങ്ങൾ ഇതൊക്കെ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാ എല്ലാത്തരം പച്ചകറികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പക്ഷേ അതൊരു പുരോഗമനമില്ലെന്ന് മാത്രമേ ഉള്ളു അതിനുള്ള കായ്ഫലം വരുമ്പം ഒന്നീ ആ കായ്ക്ക് അതിനുള്ള വില കിട്ടത്തക്ക രീതിയിലുള്ളത് അല്ലായിരിക്കും അത് കുരുടും ഈച്ച ശല്യം എല്ലാംകുടെ ആവുമ്പം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പൈസ മൊടക്കുകേം ചെയ്തു പക്ഷേ അതിനുള്ള ഇത് കിട്ടുന്നില്ല മണ്ണ് പരിശോധനയും അങ്ങനെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നല്ല പൈസ ചിലവാന്നെ ഉള്ളു പക്ഷേ അതിനുള്ള മാർഗ്ഗം ഒന്നും നമുക്കില്ല കിട്ടുന്നില്ല അതാണ് അത് കാരണം മനസ്സിന് മനസ്സൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് മരവിച്ച് പോകും ഇപ്പം ഈ ഒത്തിരി ഇങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നോക്കുന്ന കട ബാധ്യത കൂടുമ്പോൾ അപ്പം അതിന് ഗവൺമേൻറ്റ് നമ്മളെ ഒരു എന്തെങ്കിലും സഹായിക്കുവാണേൽ നമുക്ക് അത്രയും കുറച്ച് മനസ്സിന് ഇത് കിട്ടും ഇപ്പം നമ്മളിപ്പം അതിഥി ഒക്കെ കൂടി വരുമ്പം ഓരോ മനുഷ്യർ കട ബാധ്യതയായിട്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയിലേക്ക് പോകും ബാധ്യതകൾ എത്ര കണ്ടാലും കൃഷിയിൽ കിട്ടിയില്ല എന്നൊരു ഇതിൽ വരുമ്പം അവർ ആത്മഹത്യയിലേക്ക് പോയാലേ അവർക്ക് കുടുംബം നോക്കണ്ടേ അപ്പം കൃഷിക്കാർ ആവുമ്പം വലിയ ഈ കൃഷിയിൽ നിന്നും കിട്ടുന്ന ആ വരുമാനം മാത്രം അല്ലെ ഉള്ളു അപ്പം കൃഷിയിൽ നിന്ന് വരുമാനം കിട്ടിയില്ല എങ്കിൽ പിന്നെ വേറെ മാർഗ്ഗം ഒന്നും ഇല്ലല്ലോ ചുറ്റോട് ചുറ്റും കടം കാണുകയല്ലേ അപ്പം അത്കൊണ്ട് നമ്മൾ കൃഷി നമുക്ക് ഗവൺമെൻറ്റൂടെ നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ ഈ കൃഷിയേം നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റു ഇപ്പം കൃഷി ഭവനാണേലും ഞങ്ങൾ ബന്ധപ്പെട്ട ഞങ്ങൾ മിക്കവാറും ഒക്കെ കൃഷി ചെയ്യുന്നത് തൈകളൊക്കെ തന്നാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് എങ്കിലും നമ്മൾ അതിനുള്ള നമ്മൾ ചെയ്യുന്ന അത്രെ ഉള്ള ബെനിഫിറ്റ് നമുക്കില്ല അപ്പം കൃഷി ഒത്തിരി ഞങ്ങൾ കാലം ഞങ്ങൾ കാലങ്ങളായിട്ട് കൃഷിക്കാർ തന്നെ ആണ് എന്ത് ചെയ്താലും കായ് ബലമാകുമ്പം നമുക്ക് അന്നേരം ഒരു പിന്നെ കായ് ഫലത്തിൻറ്റവിടെ ആവുമ്പോഴാണ് ഒരു ഒരുപാട് എന്താ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇതേ കായ് നമുക്ക് കൊടുക്കാൻ പറ്റുകേല അങ്ങനെ നമ്മൾ കൊണ്ട് വരുന്ന കായ് അവർക്ക് ഇഷ്ടപ്പെടത്തും ഇല്ല അപ്പം അങ്ങനൊക്കെ നമ്മൾ വലുതായിട്ട് കൊണ്ടെല്ലും പക്ഷേ നമ്മൾ അവർ പറയുന്നത് കടക്കാരാണേലും പറയുന്നത് ഇത് മോശവാന്നാ പറയുന്നത് അപ്പം അതിനുള്ള നമുക്ക് അന്നേരം അതൂടെ കേൾക്കുമ്പം ബുദ്ധിമുട്ടാകുകേലെ നന്നായിട്ട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് കൊണ്ട് ചെല്ലൂമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പം മാനസികമായിട്ടുമൊക്കെ ഒത്തിരി തളരും ഞങ്ങളെല്ലാത്തരം കൃഷികളും ചെയ്യുന്നുണ്ട് പച്ചക്കറി ആണേലും എല്ലാത്തരം വിളകളും ചെയ്യുന്നുണ്ട് ഈ ആ ഇങ്ങനൊക്കെ ഞങ്ങൾ ഇരിക്കുന്നു